എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മലയാളം പഴഞ്ചൊല്ലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴഞ്ചൊല്ലുകൾ ഇന്ന് എല്ലാവർക്കും അതൊരു പുതുമയായ്ക്കൊണ്ടിരിക്കുന്ന കാലമാണ് പഴഞ്ചൊല്ലുകൾക്കൊന്നും വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാത്ത കൊടുക്കുന്നില്ല കുറവുള്ള കാലമാണ് എങ്കിലും പഴയ കാലങ്ങളിൽ പഴഞ്ചൊല്ലുകൾക്ക് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുതന്നെയാണ് പറയുന്നത് പലപ്പോഴും പഴഞ്ചൊല്ലുകൾ പല അനുഭവങ്ങളാകുന്ന കഥകളാണ് പഴഞ്ചൊല്ലുകൾ പണ്ടൊക്കെ അമ്മമാർ അല്ലെങ്കിൽ മുതിർന്നവർ പ്രായമായവരൊക്കെ പഴഞ്ചൊല്ലുകളെപ്പറ്റി പറയാറുണ്ട് പഴഞ്ചൊല്ല് എന്നു പറയുന്നത് അതൊക്കെ ഒരു പണ്ടുള്ളവരുടെ ഒരു വലിയ വിശ്വാസം കൂടി ആയിരുന്നു പഴഞ്ചൊല്ലുകൾ എന്നു പറയുന്നത് പഴഞ്ചൊല്ലിൽ പതിരില്ല അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം പഴഞ്ചൊല്ലുകൾ പലതും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് പഴഞ്ചൊല്ലുകളായി നാം പലപ്പോഴും ഓർക്കാറുള്ളത് പഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ലുകളെന്ന് പറയുന്നത് പ്രയോഗിക്കുന്നത് പ്രയോഗങ്ങൾ പല മലയാളത്തിൽ ഏറ്റവും നന്നായി പഴഞ്ചൊല്ലുകൾ ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അങ്ങനെ നമ്മളുടെ ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെയുണ്ട് പക്ഷെ ഒന്നും എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അങ്ങോട്ട് വരുന്നില്ല പെട്ടെന്ന് കാള കിടക്കും കയറോടും അങ്ങയായിട്ടുള്ള ഒരുപാടൊരുപാട് പഴഞ്ചൊല്ലുകളൊക്കെയുണ്ട് പഴഞ്ചൊല്ലുകളെന്നും എൻ്റെ ഓർമ്മയിലിപ്പോൾ അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല എങ്കിലും പണ്ടുള്ള അമ്മമാരൊക്കെ വല്ല്യമ്മമാരൊക്കെ പറഞ്ഞു കേട്ട പഴഞ്ചൊല്ലുകൾ ധാരാളം എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഒന്നും എനിക്കിപ്പം എൻ്റെ മനസ്സിൽ നിന്നിങ്ങോട്ട് വരുന്നില്ല പറയാൻ പറ്റുന്നില്ല അതാണെനിക്ക് പറ്റിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പഴഞ്ചൊല്ലുകൾ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് പഴഞ്ചൊല്ലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതെല്ലാം യാഥാർഥ്യങ്ങളായ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് കേൾക്കുന്നവർക്കൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നു തോന്നുന്നു